ഇപ്പോൾ ഇന്ത്യയിലെ വിനോദ സഞ്ചാരങ്ങള് ഇഷ്ടംപോലെ ഉണ്ട് കാരണമെന്താ വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെന്നു പറഞ്ഞു കഴിഞ്ഞാലൊരു വിനോദ സഞ്ചാരങ്ങളുടെ നാടായിട്ടാണ് അറിയപ്പെടുന്നത് കാരണം ഇഷ്ടംപോലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് താജ്മഹൽ എന്നു വേണമെങ്കില് പറയാം താജ്മഹൽ ആണ് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ വൺ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം എന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാര് ഇഷ്ടംപോലെ നമ്മളെ നാട്ടിൽ നിന്നും പിന്നെ പുറമേയുള്ള ആൾക്കാരും എല്ലാരും അതായതിപ്പോൾ ഇപ്പോൾ ഇന്ത്യയ്ക്ക് പുറത്തുള്ള പല ആൾക്കാരും താജ്മഹലൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ അടുത്തെന്നു പറഞ്ഞു കഴിഞ്ഞാല് മൈസൂർ പാലസുണ്ട് മൈസൂർ പാലസാണെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ അടുത്ത് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി ഇരിക്കുകയാണ് അവരുടെ കാരണെന്താ വെച്ച് കഴിഞ്ഞാൽ ദസറ എന്ന് വേണമെങ്കിൽ പറയാം അത് ഒക്ടോബർ ഒരു പതിനാല് പതിനഞ്ച് ആ ടൈമിലൊക്കെയാണ് വരുന്നത് ആ ദസറാന്നു പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഉള്ളതെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് പല രീതികളിലുള്ള കോവിലുകള് ഇഷ്ടംപോലെ കോവിലുകളുണ്ട് നമ്മളെ കേരളത്തിൽ തന്നെ എന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അതൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ വണ്ണായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെന്നൊക്കെ പറയാം